ഫുഡ് ഐറ്റം അഞ്ചെണ്ണം പറയാമല്ലേ അഞ്ച് ഫുഡ് ഐറ്റം ഒന്നാമത്തേത് പീനട്ട് രണ്ടാമത്തേത് പിന്നെ ബിരിയാണി മൂന്നാമത്തേത് വെജിറ്റബിൾ ബിരിയാണി നാലാമത്തേത് ചപ്പാത്തി അഞ്ചാമത്തേത് പൊറോട്ട അഞ്ചെണ്ണം പറഞ്ഞിട്ടുണ്ട്